ആ ഇവിടെ അടുത്ത് നിങ്ങളുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു സ്ഥലം ഉണ്ട് നല്ല ഒരു ലൊക്കേഷനാണ് നല്ല വീടാണ് വീട് നല്ല ഒത്തിരി പഴക്കമുള്ള വീടൊന്നുവല്ല എല്ലാ സൗകര്യങ്ങളുമുണ്ട് വെള്ളം ഉണ്ട് വഴി ഉണ്ട് ആരാധന ഇപ്പം പള്ളിയാണെങ്കിൽ പള്ളി ഉണ്ട് അമ്പലമുള്ളതാണെങ്കില് എല്ലാ തരത്തിൽ ഉള്ള ആരധനാലയങ്ങളുമുണ്ട് സ്കൂൾ ഉണ്ട് അപ്പോള് പിന്നെ മറ്റ് സൗകര്യങ്ങള് എല്ലാം ഉള്ളൊരു സ്ഥലവാണ് അപ്പം അതിൻ്റെ റെൻ്റിനെ കുറിച്ച് പറയുവാണെങ്കില് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പതിനായിരം രൂപയാണ് മാസ വാടക അല്ല സെക്യു് സെക്യു്രിറ്റിയല്ല ഓരോ മാസവും ഉള്ള വാടകയാണ് പതിനായിരം സെക്യു്രിറ്റി നമുക്ക് അമ്പതിനായിരം രൂപയെങ്കിലും കിട്ടണം അപ്പോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കെട്ടിടമുണ്ട് നാല്ലൊരു കെട്ടിടമുണ്ട് മൂന്ന് മുറി അറ്റാച്ചിഡ് ബാത്രൂമ് ഹാള് സിറ്റൗട്ട് കിച്ചണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടേ നല്ല മുറിയാണ് അതുകൊണ്ടാണ് പതിനായിരം രൂപ വാടകയും അമ്പതിനായിരം രൂപ നമ്മുടെ സെക്യൂരിറ്റിയും പറഞ്ഞിരിക്കുന്നതേ കിണർ വെള്ളമുണ്ട് നമ്മള് കിണറിന് വെള്ളത്തിന് യാതൊരു ഷോർട്ടേജ് ഇല്ല അതുകൊണ്ട് പൈപ്പ് കണക്ഷൻ്റെയൊന്നും ആവശ്യമില്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളമുള്ളൊരു സ്ഥ ഏരിയ ആണവിടെ വളരെ നല്ലൊരു സ്ഥലവാണ് ആ അയൽവാസികളായാലും അയൽക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് അതിനകത്തൊന്നും പ്രത്യേകിച്ച് നമ്മള് ബോതറാകണ്ട കാര്യവില്ല നല്ല അയൽക്കാരൊണ്ട് പിന്നെ ചുറ്റുമതിലുള്ള വീടാണ് നമുക്ക് പിന്നെ പുറത്ത് നിന്നുള്ള ശല്യങ്ങളോ അങ്ങനെ ഉള്ള ഒന്നുവില്ല അങ്ങനെ ചുറ്റുപാടുമുള്ള അയൽക്കാരുവായിട്ട് നല്ല ന ബന്ധത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ പോകുന്നെന്നോന്നും കുഴപ്പമില്ല എല്ലാവരും നല്ല ആൾക്കാരുവാണ് വളരെ നല്ലൊരു പള്ളിയിലേക്ക് ഒര് അഞ്ഞൂറ് മീറ്ററ് അഞ്ഞൂറ് മീറ്ററ് ഉള്ളു പള്ളിയിലേക്കുള്ള അകലം അതുപോലെ സ്കൂളും അതിനടുത്ത് തന്നെ സ്കൂളും ഉണ്ടേ ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ ഒന്ന് രണ്ട് കിലോമീറ്ററുകള് പോകേണ്ടതുണ്ട് അത് അതേ പതിനൊന്ന് മാസത്തേക്ക് നൂറ് രൂപയുടെ പത്രത്തില് പതിനൊന്ന് മാസത്തേക്ക് നമുക്ക് വാടക ചീട്ടെഴുതി തരണം പതിനൊന്ന് മാസം കഴിഞ്ഞാല് നിങ്ങള് നമ്മള് കുഴപ്പം ഒന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ വീണ്ടും അവിടെ നമുക്ക് തുടരുകയും ചെയ്യാം വാടക ചീട്ട് പുതുക്കിയിട്ട് തുടരുകയും ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞായറാഴ്ച വരികയായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നാൽ ഞങ്ങളവിടെ കാണും വീട് തുറന്ന് നമുക്കെല്ലാം കാണാം എല്ലാം ബോധ്യപ്പെട്ട് പോകാവുന്നതാണ് ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് പിന്നെ ഒരു കുറവും വരികയില്ല പതിനായിരം രൂപ വാടകയും അമ്പതിനായിരം രൂപ നമ്മുടെ സെക്യൂരിറ്റിയും അപ്പം വീട് കണ്ടതിന് ശേഷം നിങ്ങളത് ബോധ്യപ്പെടും നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ അങ്ങ് മുന്നോട്ട് കൊണ്ട് പോകാവുന്നതാണ് ഒറ്റ നില വീടാണ് മുകളിലോട്ട് നമ്മള് സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട് സ്റ്റെയർ റൂം മാത്രേയുള്ളു താഴെയാണ് ഈ മൂന്ന് ബെഡ് റൂംമും കിച്ചണും ഹാളും എല്ലാം ഉള്ളത് അത് കൊണ്ട് ഇച്ചരെ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല എല്ലാം താഴെയാണ് മുറികളൊക്കെ ആ ഓക്കെ താങ്ക്യൂ